എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളും അനുഭവങ്ങളൊക്കെ പെയിൻറിങ് ഉൾപ്പെടുത്താറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം ആളുകളോടും ഞാൻ വെറുതെ ജസ്റ്റ് സ്കൂളുകളിൽ ഒക്കെ ആയിരുന്നു പെയിന്റിങ്ങും കൂടുതലും വര കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് ഡ്രോയിങ് ക്ലാസ് പിരീഡ് ആഴ്ചയിൽ ഒരിക്കൽ വരുമല്ലൊ അപ്പം അന്നത്തെ ടൈമിൽ ഒക്കെ ഞാൻ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഒന്നും ഞാൻ വരക്കാറില്ല കാരണം വരയ്ക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പം അന്നത്തെ കാലത്തൊക്കെ വീട്ടിലിരുന്ന് ടീച്ചർ പറയുന്നതിന് അനുസരിച്ച് വേറെ വേറെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും എൻ്റെ അച്ഛനേയും അമ്മേനേയും വെറുതെ അവരുടെ മുഖമൊന്നുമായിരിക്കില്ല നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന പോലെ നമ്മൾ വരയ്ക്കും പിന്നെ ഓരോ അതായത് നമ്മൾ ടിവിയിലൊക്കെ കാണുന്ന പോലെ ഓരോന്ന് എഴുതി അതിൽ പെയിൻറ് കൊടുക്കും അപ്പം അങ്ങനെയൊക്കെ കൊടുത്ത് കുറച്ച് വൃത്തിലൊക്കെ കാണുമ്പം വൃത്തിലൊക്കെ തോന്നുമ്പം ഞാൻ എൻ്റെ അച്ഛനേയും അമ്മനേയും ഒക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കും അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടം ആയിരിക്കും നീ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രചോദനമാണ് അപ്പം പിന്നെയും പിന്നെയും ഞാൻ ആ ടൈമിൽ കുറെ ചിത്രങ്ങളൊക്കെ വരച്ചട്ടുണ്ടായിരുന്നു അന്നത്തെ ബുക്ക് ഒക്കെ ഇപ്പഴും എൻ്റെ കയ്യിൽ ഉണ്ട് അതായത് വലിയ പെർഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലവണ്ണം ഞാൻ ആ ടൈമിൽ ഒക്കെ വരയ്ക്കുമായിരുന്നു